ആ ചേട്ടാ ആ പണിയുണ്ടെന്ന് പറഞ്ഞു വീട്ടില് കുറച്ച് ആ ആ ആ

ആ മുഴുവനായിട്ടുണ്ടല്ലേ അപ്പോൾ റീവർക്ക് ചെയ്യാൻ വേണ്ടീട്ടാണല്ലേ

പുതിയതല്ലേ മൂന്ന് നാല് ദിവസം അല്ലേ ഇതിപ്പോൾ ടാങ്ക് മൊത്തത്തില് ചെയ്യണം അപ്പോൾ ആ മൊ ആ ആ മുകളിലേക്ക് മുകളിലേക്ക് ആയിരം ലിറ്റർൻ്റെയല്ലേ അതോ ആ ആ ആ ആയിരത്തിൻ്റെയല്ലേ

അ ആ അതും പുതിയത് ചെയ്യണം അപ്പോൾ ഓ ശരി ശരി ശരി അപ്പോൾ ഈ പുറത്ത് ബാത്റൂമിലേക്ക് അത് എന്ത് അത് എന്ത് ചെയ്യണം ആ ശരി ശരി ആ വാഷിങ്ങ് പ്ലേസ് പോലല്ലെ അ ആ അതെങ്ങനെയാണ് മറ്റേ സിങ്ക് മറ്റേതിൻ്റെ വയ്ക്കാനാണോ അതോ എങ്ങനെയാണ് പുതിയതിലൊ ഓ ശരി ശരി അ ആ അ അങ്ങനാണേൽ നമുക്ക് നമ് ഓ ഓ ഒ ഓ ശരി ശരി ശരി ആ ഇതും മലമ്പുഴ ഉള്ളതല്ലെ അതിലെഴുതിയേക്കുന്നത് അ അ ആ ആ അപ്പോൾ പിന്നെ കുഴപ്പമില്ല അങ്ങനാണെൽ നമുക്കറിയുന്ന കടയുണ്ട് മറ്റേ നമ്മടെ പാലക്കാട് അവിടെ പോകാം എന്നാൽ പോയി നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് എസ്റ്റിമേറ്റെടുത്തിട്ട് ആ അങ്ങാടിയില് അങ്ങാടിയില് സുഫിക്സില്ലേ സുഫിക്സ് അ ആ ആ അല്ല വേറേ ഏതെങ്കിലും വേറെ നിങ്ങൾക്കറിയുന്ന കടയുണ്ടെങ്കിൽ നമുക്കവിടെ പോകാം

കമ്മിയുണ്ട് കമ്മിയുണ്ട് നമുക്കറിയുന്ന കടയാണ് നമ്മളെന്നും എടുക്കുന്ന കടയല്ലേ അ ആ നമ്മൾ ഈ പൈപ്പ് നമുക്കെങ്ങനെ ചുവരിലൂടിടാണോ അതോ മറ്റേ അടിയിലൂടെ മണ്ണ് കുഴിച്ചിട്ടിടണോ എന്ത് ചെയ്യണം എല്ലാവരും ചെയ്യണേ അപ്പം നമക്ക് മണ്ണ് കുഴിക്കുകാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾടെ അഡീഷ്ണല് കൊണ്ട് വരണ്ട വരും അപ്പം നമുക്ക് ചുവരിൻ്റെ സൈഡീൽ കൂടെ താഴെക്കൂടെ കൊടുക്കുകാന്ന് പറഞ്ഞാൽ വലിയ പണി ഇല്ല മണ്ണ് കുഴിക്കാനാകുമ്പോൾ ഒരാൾടെ അഡീഷണല് വിളിക്കണ്ട വരും പിന്നെ കുഴി എടുക്കാനുള്ളത് അങ്ങനൊക്കെ നോക്കണ്ട വരും ഇല്ല നമ്മള് നല്ലത് പൈപ്പ് ഇടുവാണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് താഴെ കൂടെ തന്നെ ഇടാം മണ്ണിൻ്റടീകൂടെ തന്നെയിടാം അപ്പോൾ പിന്നെ റിസ്ക് എടുക്കണ്ടല്ലോ അ അ ആ അപ്പൊപ്പിന്നെന്നാൽ ഇന്ന് തുടങ്ങാം പണി ഞാനിപ്പോൾ ദേ ഈ പുറത്ത് ഇങ്ങട് നമ്മടെ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനങ്ങട് കയറുവാണ് ഞാനങ്ങനാണെൽ വൈകിട്ട് വന്നിട്ട് എസ്റ്റിമേറ്റെടുത്ത് ഏകദേശം എത്ര ആകുമെന്ന് നോക്കിയിട്ട് നമുക്കെന്നാൽ നാളെയോ മറ്റന്നാളായിട്ടോ പോകാം ആ ശരിയാ ശരിയാ എന്നാൽ ഞാനെന്നാ വൈകിട്ട് വരാം അപ്പോൾ ഓ ഓ ശരി ശരി ഞാനാ ഇത് അന്ന് ഞാനെല്ലാം കൂട്ടീട്ട് വൈകിട്ട് പറയാം നോക്കീട്ടെ എത്ര സിമെന്റും മണലും ബാക്കി ഉള്ളതൊക്കെ നോക്കിയിട്ട് ഏകദേശം എത്ര വരുമെന്ന് പറയാം ശരി എന്നാൽ ശരി ഞാൻ വൈകിട്ട് വരാം എന്നാൽ ആ ആ ശരി ആ